നമ്മുടെ ഭക്ഷണക്രമീകരണങ്ങളില് നമ്മള് കഴിക്കുന്ന ഒരു കാര്യമാണ് മത്സ്യം മത്സ്യം നമ്മള് കാശു കൊടുത്തു മേടിക്കുന്നുണ്ട് സ്വന്തമായി പിടിക്കാൻ പോകുന്നുണ്ട് ഞാനിങ്ങനെ ഒരിക്കല് ഇടുക്കി ഡാമില് ചൂണ്ടയിടാനായിട്ടു പോയി ഞങ്ങളിവിടെ ചുവട്ടിലും ആ ഡാമിലൊക്കെ ചൂണ്ടയിടാൻ പോകും അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ഒരു സന്തോഷത്തിൻ്റെ പേരിലും നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ നല്ല മീൻ കൂട്ടാലോ എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ഇടുക്കി ഡാമിലേക്കു പോയി ഇടുക്കി ഡാമിൽ ചെന്നു ഞങ്ങൾ ചൂണ്ടയിട്ടു ചൂണ്ടയിട്ടപ്പോൾ എൻ്റെ ചൂണ്ടയില് ഒരു വലിയ മത്സ്യം കൊത്തി അപ്പോള് ഞാൻ പിടിച്ചിട്ടൊന്നും അത് കിട്ടുന്നില്ല പിന്നെ കൂട്ടുകാരുടെ കൂട്ടിപ്പിടിച്ച് ഒരു തരത്തില് ആ മത്സ്യത്തെ ഞങ്ങൾ പിടിച്ച് കരയ്ക്കുകയറ്റി അപ്പോള് ആ മത്സ്യത്തിന് മുഴുപ്പം അതൊരു വലിയ മത്സ്യമായിരുന്നു അപ്പോള് എനിക്കത് എന്താണെന്നൊന്നും മനസ്സിലായില്ല അപ്പോള്പ്പിന്നെ എല്ലാവരോടും ചോദിച്ചു എന്തായിരിക്കും അതെന്ന് അപ്പോള് അത് ഗോൾഡ് ഫിഷാണ് മുഴുത്ത മത്സ്യമാണെന്നു പറഞ്ഞു അപ്പോഴങ്ങനെ വലിയൊരു ഗോൾഡ് ഫിഷിനെ കിട്ടുകയും ആ മത്സ്യത്തെ കരയ്ക്കു കയറ്റാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെല്ലാം സഹായിച്ചു അവരുടെ സഹായത്തോടു കൂടി അതിനെ കരയ്ക്കു കയറ്റിയെടുത്ത് വലിയ ഈ വളരെ മുഴുപ്പായതുകൊണ്ട് അതിനെ മെരുക്കി നിർത്താൻവേണ്ടി നമ്മളതിൻ്റെ നഷ്ടപ്പെട്ടുപോവാതെ നമ്മളതിനെ ചൂണ്ടയൊക്കെ ഊരിയെടുത്ത് വലിയ ഒരു ചാക്കിലേക്ക് ആക്കി കൊണ്ടു പോരാൻ വേണ്ടി കെട്ടിവച്ചു വീണ്ടും ചൂണ്ടയിടാനൊക്കെ പോയി അന്നേരം ഇത്രയും മുഴുത്തതും എവിടുന്നും കിട്ടിയില്ല എങ്കിലും പ്രതീക്ഷിക്കാതെ ഇത് ആദ്യത്തെ മത്സ്യം കിട്ടിയപ്പോള് ഉണ്ടായ ആ സന്തോഷം ആ ആനന്ദം അത് എന്നില് മാത്രമേ എൻ്റെ കൂടെ പോകുന്നവർക്കും നിനക്ക് ഇത്രയും വലിയ മീൻ കിട്ടിയല്ലോടാ എന്തു സന്തോഷമായിപ്പോയി ഞങ്ങളിട്ടിട്ടൊന്നും കൊത്തണോ ഇല്ല ചെറുതല്ലേ കൊത്തുന്നുള്ളൂ എന്നൊക്കെ അവര് പറയുമ്പോള് നമുക്കൊരു അഭിമാനവും ചെറിയ അഹങ്കാരവും ഒക്കെ ആ സമയത്ത് ഒന്നു തോന്നി കാരണം എനിക്കിത് കിട്ടിയല്ലോ ആദ്യം ചുമ്മാ കുറേ വീമ്പടിക്കും എൻ്റെ കഴിവുകളാതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മത്സ്യത്തെ പിടിച്ചു കരയില് കയറ്റി ചാക്കിലാക്കി അതു കഴിഞ്ഞ് വീണ്ടും കുറച്ചു മത്സ്യം കൂടി പിടിക്കാൻ വേണ്ടി തയ്യാറായി വീണ്ടും ചൂണ്ടയിട്ടു പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ വീമ്പടിച്ചതുപോലെ ഒന്നും എനിക്കു കിട്ടിയില്ല കിട്ടുന്നത് ചെറുതരം മീനായിരുന്നു അങ്ങനെ ആ മീനെ പിന്നെയും ചൂണ്ടയിട്ടുകൊണ്ടിരുന്നു നമ്മുടെ ആവശ്യത്തിന് ആ ഒറ്റ മീൻ കിട്ടിയപ്പോള്ത്തന്നെ നമ്മുടെ ആവശ്യത്തിനെക്കാൾ ഒത്തിരി കൂടുതല് കിട്ടി അപ്പോള് ഞാൻ കൂട്ടുകാരോടു പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കൊണ്ട് നമ്മുടെ വീട്ടില് ചെന്നിട്ട് നമുക്ക് ഇതിനെ വെട്ടിത്തിരിച്ച് നമുക്കെല്ലാവർക്കുംകൂടി എടുക്കാം ഉള്ള മീനുംകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീതിക്കാം അതാണല്ലോ സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷം അവർക്കും അതുകൊണ്ട് നമ്മള് കൊടുക്കാന്നൊക്കെ പറയുമ്പോള് അവർക്കും വലിയ സന്തോഷമായി നമുക്കെല്ലാവർക്കും ആവശ്യത്തിന് മീനാവുമെടാ ഇത്രയും നല്ല മീൻ കിട്ടിയതുകൊണ്ടു നന്നായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഞങ്ങള് പറഞ്ഞ് ആ മീൻകൊണ്ട് ഞങ്ങള് വീട്ടില് വന്നു വീട്ടില് വന്നപ്പോള് വളരെ സന്തോഷമായി എല്ലാവർക്കും പിള്ളേർക്കും തൊട്ട അയല്ക്കാർക്കും എല്ലാവരും വന്നുകൂടി ഇപ്പോള് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ചെറിയ മീനുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോള് അതെല്ലാം കൂടെ കൂടി ഞങ്ങള് വച്ച് ഞങ്ങള് പോയവരെല്ലാവരും വീതിച്ചെടുത്ത് ഞങ്ങള് കറിയൊക്കെ വച്ചു പക്ഷേ ഈ മീനിനു മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കറിയൊക്കെ വച്ചു നമ്മള് വറുത്തെടുത്തപ്പോള് നല്ല ടേസ്റ്റുള്ള മത്സ്യമായിരുന്നു ഞങ്ങളത് ആദ്യം ഞങ്ങളെല്ലാം കൂടി നില്ക്കുമ്പോള്ത്തന്നെ കുറച്ച് കറിയൊക്കെ വച്ചെടുത്തു എന്നിട്ട് കുറെ കപ്പയൊക്കെ പറിച്ചു പുഴുങ്ങി ഞങ്ങളൊക്കെ തിന്നു തിന്ന് സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടി അതുകഴിഞ്ഞ് ഈ കുട്ടുകാരെല്ലാം കപ്പയൊക്കെ തിന്നുകഴിഞ്ഞിട്ട് അവര് അവരവരുടെ മീൻ എടുത്തുകൊണ്ട് അവര് അവരുടെ വീട്ടിലേക്കു പോവുകയും ഞാൻ പിന്നെ വീട്ടില്ത്തന്നെ പിന്നെ മീൻ പിടിക്കാനൊന്നും പോയില്ല വീട്ടില്ത്തന്നെ കൂടി വീട്ടിലെല്ലാരോടും വലിയ വീമ്പൊക്കെ അടിച്ച് അങ്ങനെ പോയി ഇങ്ങനെ ചൂണ്ടയിട്ട് ഇരിക്കുകയാണ് അത്രയും വലിയ മീൻ കിട്ടിയത് അതു നല്ല അനുഭവം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരും ആ അവരും പറഞ്ഞു ആ കൊള്ളാം ഇത്രയും വലിയ മൽസ്യമൊക്കെ ഇടുക്കി ഡാമിലുണ്ടോ എന്നൊക്കെ അവര് ചോദിച്ചു ഞാൻ പറഞ്ഞു എത്രയോ വർഷമായ ഡാമാ അപ്പോള് അവിടെയൊക്കെ ഇനിയും ഇതിലൊക്കെ ഒത്തിരി മുഴുത്തതു കാണും എന്നൊക്കെ അവരോടു പറയുകയും ഇനിയും ചൂണ്ടയിടാൻ വേണ്ടി പോകണം എന്ന താൽപര്യം ഞാൻ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇനിയും അങ്ങനൊരവസരം കിട്ടുവാണെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടി ഇനിയും മീൻ പിടിക്കാൻ പോകണമെന്നുള്ളൊരു താല്പര്യമാണ് ഞങ്ങളിലുള്ളത് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും അപ്പോള് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കു വിഷമില്ലാത്ത ഐസ് പോലും ഇടാത്ത നല്ല മത്സ്യം നമുക്കു കിട്ടും അതു നമുക്കു കഴിക്കാൻ പറ്റും അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്